ഹോമിയോ പതിയെക്കുറിച്ച് നമുക്ക് അറിയാം അതെന്ന് പറഞ്ഞങ്കിൽ നമ്മൾ കുറെ കാലം എടുത്ത് ഒരു ആറ് മാസം വരെ ഹോറുമിയോപ്പതി മരുന്ന് എടുത്തിട്ടുണ്ട് കൈ കാൽ കടച്ചിൽ പിന്നെ പിന്നെ അലർജി അങ്ങനെയ്ള്ള രോഗങ്ങൾക്കക്കെ ഹോമിയോപതി എടുക്കാറുണ്ട് അതുപോലെ ആയുർവേദമാന്ന് എനിക്കിഷ്ടം ആയുർവേദം പിന്നെ സാധാരണ ഒരു പൊടി കൈകളെല്ലാം എനിക്കറിയാം ഞാൻ അപ്പോൾ പ്രസവത്തിനെല്ലാം മരുന്ന് ഇങ്ങനെ ഇങ്ങനെ പൊടിയെല്ലാം വാങ്ങിച്ചിട്ട് ചെയ്ത കൊടുക്കാറ് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ അവർ എല്ലാവരും പറഞ്ഞു അതങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെ എന്തോക്കയോ അതിൽ ഇതണ്ട് മറ്റേ സർട്ടിഫിക്കറ്റെടുക്കണം അങ്ങനെ എല്ലാം പറഞ്ഞു അപ്പം ഇന്നത്തെ കാലത്ത് പിന്നെ ആരും ഈ വാങ്ങിച്ചിട്ട് കഴിക്കുന്നല്ലാതെ ഇങ്ങനത്തെ മറ്റേ വീട്ടിലന്നെ ഉണ്ടാക്കീട്ട് കഴിക്കുന്നത് കുറവാന്ന് അപ്പം എനിക്ക് അതിനെപ്പറ്റി കുറച്ചെല്ലാം കുറച്ചറിയാം പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്ക കൊണ്ട് പിന്നെ ചെറിയ പ്രയോഗമെല്ലാം ആക്കും ചെറുങ്ങനെയുള്ള പനിക്കെല്ലാം നമ്മൾ തുളസി ഇല ഇട്ടിട്ട് അങ്ങനെ അങ്ങനയൊക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും പോകാം ആയാ ആയുർവേദം എടുക്കും ഹോമിയോ എടുക്കും ഹോമിയോ കുറച്ച് ദൂരാന്ന് നമുക്ക് മദൂറ്ന്ന് പറയുന്നൊരു അം ക്ഷേത്രമുണ്ട് അതിനടുത്താന്ന് ഹോമിയോ ഇവിടെ അടുത്തില്ല എന്നെങ്കിൽ ആയുർവേദം നമുക്ക് ഇവിടെ അടുത്ത് ആയുർവേദമുണ്ട് രണ്ട് ഡോക്റ്റർ മാറും ഉണ്ട് പിന്നെയിപ്പോൾ അവിടെ പോകും അത് കഴിഞ്ഞിട്ട് അസുഖം മാറീല്ലങ്കിൽ ടൗൺല് നമ്പീശൻന്ന് പറഞ്ഞിട്ട് പണ്ടേ മുൻപെ പേര് കേട്ടതാന്ന് ആടുന്നു എടുക്കും കഷായം ഉഴിച്ചിൽ അങ്ങനെ എടുക്കും ഇപ്പോഴും ഞാൻ എടുക്കുന്നുണ്ട് കൈകാൽ കടച്ചിലിന് കുറെ കാലം ഹോമിയോ എടുത്തു ഹോമിയോ എടുത്തിട്ട് പോകാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് പിന്നാണ് ഇവിടെ അടുത്ത വീട്ടിന്ന് എടുക്കാൻ തുടങ്ങി പിന്നെ അതു കഴിഞ്ഞ് ഇത് ഹോമിയോ നിർത്തി പിന്നെ ആയുർവേദം ആയുർവേദം സ്റ്റാർട്ട് ചെയ്തു ആയുർവേദം എടുത്തു പിന്നെ ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് പറ്റുന്നില്ല ഇംഗ്ലീഷ് മരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ ശരീരത്തിന് എൻ്റെ ശരീരം മെലിഞ്ഞിട്ടാണ് അപ്പം ഇംഗ്ലീഷ് മരുന്നെടുത്താൽ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് പ്രഷറ് കുറവ് അങ്ങനെയെല്ലാം വരുന്നുണ്ട് എന്നെങ്കിലും നല്ല അസുഖങ്ങൾ നല്ലോണം അസുഖം വന്നാൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നും ഉപയോഗിക്കും പിന്നെ എൻ്റെ ഇപ്പോൾ ഭർത്താവിനെല്ലാം അങ്ങനെയാണ് വലിയ വലിയ അസുഖങ്ങളാന്ന് ഹാർട്ടറ്റാക്കും അങ്ങനെ ആന്ന് അതിപ്പം ഞാൻ ഇതിന് മുൻപത്തെ ഇതിൽ ഇതായിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കിനി പറ്റൂല്ല ഇംഗ്ലീഷും ഇംഗ്ലീഷേ പറ്റു ഇത് പറ്റൂല്ല ഹോമിയോ അലോപ ഹോമിയോ മരുന്നും ആയുർവേദം നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കെല്ലാം അങ്ങനെ വേഗം കുട്ടികൾക്കും അങ്ങനെ കുട്ടികൾക്ക് വന്നെങ്കിൽ ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ കുരുമുളകിട്ടിട്ട് കഷായം വെച്ചു കൊടുക്കും അതുപോലെ പനികൂർക്ക തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളെമെടുത്ത് കൊടുക്കും പിന്നെ എരിക്ക് എരിക്കെന്ന് പറയും നിങ്ങൾ എന്ന പറയുന്നതെന്ന് അറിയില്ല എരിക്കെന്ന് പറഞ്ഞിട്ട് ഒരെല കിട്ടുന്നുണ്ട് അത് ചൂടാക്കി കൈ കാൽ കടച്ചിലുള്ളട്ക്കെല്ലാം നമ്മൾ ഇങ്ങനെ വക്കും അപ്പം കുറച്ചാശ്വാസം കിട്ടും അങ്ങനെ അങ്ങനെ പോകും പിന്നെ പിന്നെ അസുഖം അസുഖം എപ്പളും മാറുന്നില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഭക്ഷണം പിന്നെ ഇപ്പോഴത്തെ എല്ലാം ഭക്ഷണോല്ലാം കഴിച്ചിട്ടയറ്റുമ്പോൾ വരുന്നതാന്ന് മുൻപത്തെ പോലല്ലല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതല്ല എന്നാലും കഴിവതും ഞാൻ കുറച്ചെല്ലാം വീട്ടിൽ തന്നെ പച്ചമുളക് അങ്ങനുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കും എന്നാലും നമുക്ക് വിഷാംശം അല്ലെ എല്ലാം വരുന്നതല്ലേ പുറത്തെന്ന് വന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയൂല്ലല്ലോ ഇപ്പം മീനായെങ്കിലും ഇങ്ങനെ ഇതാക്കീട്ട് കഴിക്കാൻ പറ്റുല്ലല്ലോ മീനയെങ്കിലും എല്ലാറ്റിനും ഇപ്പോൾ എല്ലാ വിഷവും ചേർത്തിട്ടല്ലേ വരുന്നത് അതുകൊണ്ട് അസുഖം മാറാനില്ല അപ്പോൾ ആയുർവേദമെന്ന് എന്തായാലും നല്ലത് ആയുർവേദം നമുക്ക് വീട്ടിൽ ശരിക്ക് ഇങ്ങനെ ചെറുത് ചെറുതെല്ലാം ഇതാക്കീട്ട് നമ്മൾ പോകും പിന്നെ അതു കഴിഞ്ഞിട്ടായിട്ട് ഇങ്ങനെ ഇതാക്കും അങ്ങനെ അങ്ങനങ്ങനെ പോവും പിന്നെ കഷായം പിന്നെ ഗുളിക ഇപ്പോഴും ഇപ്പം എടുക്കും എടുക്കുന്നുണ്ട് തൊണ്ട വേദനക്ക് പിന്നെ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ തന്നെ അങ്ങനെങ്ങും ചെയ്ത് ഇതാകും മാ മാറ്റാൻ നോക്കും മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകും പിന്നെ അലോപ്പതി മരുന്ന് കൊടുക്കും പിന്നെ ഹോമിയോ അതെന്ന് ഹോമിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആറ് മാസം വരെ ഒന്ന് എടുക്കണം അതു കഴിഞ്ഞിട്ട് നിർത്താം അത് ഇടയിൽ വെച്ച് നിർത്തിയെങ്കിൽ പിന്നെ രണ്ടാമതും എടുക്കേണ്ടി വരുന്നു അങ്ങനെ ഇതാക്കുന്നു പിന്നെ അതിനെക്കുറിച്ചിട്ടാണ് ഇതാക്കുന്നത് ഇവിടെ പിന്നെ അടുത്ത് നമുക്ക് പി എച്ച് എസ് ഇണ്ട് അടുത്ത് അപ്പം ചെറുങ്ങനെ ഇള്ള അസുഖങ്ങളെല്ലാം വന്നെങ്കിൽ പി എച് എസ്യിലു പോയി നമുക്ക് എന്നെങ്ങും തരും ഗുളികയെല്ലാം പിന്നെ കുത്തിവെപ്പ് കുട്ടികൾക്കെല്ലാം കുത്തിവെപ്പും അതൊക്കെ പി എച്ച് എസ്യിന്നു കിട്ടുന്നുണ്ട് ഗർഭിണികൾക്കുള്ളത് പിന്നെ അതുപോലെ അങ്കണവാടിയുണ്ട് അടുത്ത് അപ്പോൾ ആടുന്നും എല്ലാം നമുക്ക് അസുഖങ്ങളെക്കുറിച്ചും ക്ലാസ്സെടുക്കുന്നുണ്ട് അസുഖം ഇങ്ങനെ ആയാൽ ഇങ്ങനെ ആവും എന്നക്കെ പറഞ്ഞ് അവർ ക്ലാസ്സെടുക്കുന്നുണ്ട് അത് അതിനെല്ലാറ്റിനും പോകും മീറ്റിംഗെന്ന് പറഞ്ഞ് മാസത്തിലൊരു ക്ലാസ് നമുക്ക് തരും അതിനെല്ലാം നമ്മൾ പോവും പോയിട്ട് പിന്നെ എല്ലാറ്റിനും എല്ലാം കേട്ടിട്ട് ഇതാക്കും അതുപോലെ കുടുംബശ്രീ കുടുംബശ്രീൻ്റെ കുടുംബശ്രീലും അങ്ങനെ അസുഖങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സ്കൾ വരും പിന്നെ അതേ എല്ലാറ്റിനും നമ്മൾ പോവലുണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്നതല്ലേ വീട്ടിൽ പാചകമൊക്കെ ചെയ്തിട്ടായിട്ട് അത് അങ്ങനെയെല്ലാം കാര്യങ്ങൾക്കെല്ലാം പോയി എല്ലാം കേട്ടിട്ട് മനസ്സിലാക്കീട്ട് വരും അത്രയെ ഉള്ളു